സാങ്കേതികവിദ്യയുടെ വളർച്ച വളരെയധികം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇന്റർനെറ്റിന്റെ വളർച്ചയും വളരെയധികം മുന്നോട്ട് പോയികൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വളരെ നല്ല രീതിയിലാണ് അത് പോകുന്നത് അതിപ്പോൾ ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ആണെങ്കിലും ഓരോ യുഗങ്ങളാണ് ഫൈവ് ജി ഫോർ ജി ഫൈവ് ജി അങ്ങനെ ഓരോ യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫൈവ് ജി യുഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതും നല്ല സ്പീഡായിട്ടുള്ള ഡാറ്റകളും നമുക്ക് മറ്റും കിട്ടാറുണ്ട് അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല ഈ നാട്ടിൻ പ്രദേശങ്ങളിലേക്കൊന്നും സ്പീഡ് വന്നിട്ടില്ലെങ്കിലും ഫൈവ് ജി വന്നിട്ടില്ലെങ്കിലും നമുക്ക് സിറ്റി ഏരിയകളിലൊക്കെ നല്ലരീതിയിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട് സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലും അത് നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരിന്റെ കയ്യിലും സ്മാർട് ഫോണുകളും അതേപോലെ സിസ്റ്റം ലാപ് ടോപ്പ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അവരിന്റേതായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ മലയാള ഭാഷയാണെങ്കിലും പണ്ട് നമുക്ക് മലയാള ഭാഷ മറ്റേ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ മലയാള ഭാഷയിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഗൂഗിളാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതിൽ ഇംഗ്ലീഷ് മാത്രമായിരുന്നു സപ്പോർട് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും കുറച്ചൊക്കെ അറിയണമായിരുന്നു ഇപ്പോൾ അതിനെ അപേക്ഷിച്ച് സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം കാരണം നമുക്ക് മലയാളത്തിലും നമുക്കതൊക്കെ സെർച്ച് ചെയ്യാനും അതേപോലെ നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഔട്ട് പുട്ട് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതൊക്കെയാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ